ഹലോ ചേട്ടാ ഊബർ ടാക്സി സർവീസ് അല്ലേ ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത് എനിക്ക് ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകണമായിരുന്നു അപ്പോൾ എട്ട് മണി ആവുമ്പോഴേക്ക് അവിടെ എത്തേണ്ടതാണ് ഒരു അർജന്റ് യാത്രയാണ് അതുകൊണ്ടാണ് അപ്പോൾ അത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന ഒരു ഡ്രൈവർ തന്നെ വേണം അപ്പോൾ ഡ്രൈവറ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തുവോ എത്തിന്ന് പറഞ്ഞാൽ വളരെ സൗകര്യമായി പെട്ടെന്ന് പോവേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അതേ പോലെ എളുപ്പവഴി തന്നെ എത്തിക്കാൻ പറയണം ഡ്രൈവർ വേഗം വരാൻ പറയണേ